ഇപ്പോൾ സൈക്കിള് എന്ന് സൈക്കിളുകളെന്നൊക്കേ പറഞ്ഞുകഴിഞ്ഞാൽ പലതരം സൈക്കിളുകളുണ്ട് ഇപ്പം നമുക്കിപ്പം ചെറിയ രീതിയിലുള്ള കുട്ടികള് കളിക്കുന്ന മുതല് വലിയ രീതിയിലുള്ള സൈക്കിള് അതായതൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരുന്ന സൈക്കിളുകള് വരെയുണ്ട് അപ്പം നല്ല രീതിയിലുള്ള സൈക്കിൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് എന്റെ അടുത്തിരിക്കുന്നത് ഒരു അതായതിപ്പം പണ്ടത്തെ ഒരു ഹീറോൻറ്റെ ഒരു സൈക്കിളാണ് അപ്പം അതില് വലിയ ദൂരവും കാര്യങ്ങളൊന്നും പോകാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പോകാം പക്ഷേ നമുക്ക് കയറ്റത്തൊക്കെ ഭയങ്കര നല്ല രീതിയില് ചവിട്ടിയാൽ മാത്രമെ കയറുന്നുള്ളു അങ്ങനത്തേ കാര്യങ്ങളൊക്കെയുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് ഇപ്പഴത്തേ സൈക്കിൾ എന്നൊക്കേ പറഞ്ഞുകഴിഞ്ഞാല് ഒരു പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപേൻറ്റെയൊക്കെയാണ് അന്നെനിക്കൊരു നാലായിരം രൂപയ്ക്ക് മേടിച്ച് തന്ന ആ റേസർബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിളാണ് അപ്പം നല്ല അടിപൊളിയൊരു സൈക്കിളാണ് അത് എനിക്ക് അന്ന് എൻറ്റെ ആ കാലത്ത് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ഒരു സംഭവായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു ബൈക്ക് കിട്ടുന്നത് പോലെ ഉള്ളൊരു അനുഭൂതിയാണ് എനിക്കാ സൈക്കിള് കിട്ടിയപ്പം ആ അപ്പം നല്ല സൗകര്യമുള്ളൊരു സൈക്കിളെടുക്കാൻ ഇനിയും എനിക്കെന്തു ചെയ്യണം എന്നറിയുമോ ഒരു ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപേൻറ്റെ നല്ലരീതിയിലുള്ള അതായത് നല്ല അടിപൊളി ഒരു സൈക്കിള് നമ്മള് യാത്രയ്ക്കൊക്കേ പോകാൻ പറ്റിയ ഒരു സൈക്കിള് വാങ്ങണം എന്നൊക്കെയാണെൻറ്റെ ഒരു ആഗ്രഹം അതാണെൻറ്റെയൊരു സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം